ഹലോ അതെ ടോപ് ഫോമ് റെസ്റ്റോറന്റാണ് പറഞ്ഞോളു ആ ഇവിടെ ഇന്നത്തെ സ്പെഷ്യലുണ്ട് പ്രശ്നോന്നുമില്ലാ പിന്നെ ഇപ്പം ലഞ്ചാണോ ഉദ്ദേശിക്കുന്നത് അതോ നൈറ്റിലേക്കാണോ നൈറ്റിലേക്കല്ലേ ഓ ആ ഓക്കെ ഓക്കെ ഉണ്ടാവും ഉണ്ടാവും പ്രശ്നമില്ലാട്ടോ പതിനഞ്ച് പേർക്കുള്ള ഗീ റൈസും മി മീറ്റ് കറിയും ആണോ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ എങ്ങനെയാണ് ഞങ്ങളിപ്പം വേറെ ഇവിടെ ഇപ്പം ഇന്നിത് ടുഡേയ്സ് സ്പെഷ്യൽ എന്ന് പറയുന്നത് പ്രോൺസാണ് പ്രോൺസ് ബിരിയാണിയാണ് പിന്നെ സീ ഫുഡിൻ്റെ തന്നെ സി സീ ഫുഡ് ഐറ്റംസാണ് ഇന്ന് കുറച്ച് കൂടുതലായിട്ട് ഫോകസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ കൂന്തലുണ്ട് കൂന്തൽ ഫ്രൈയുണ്ട് പിന്നെ പ്രോൺസിൻ്റെന്നെ പ്രോൺസ് മസാല അപ്പം ഈ ബിരിയാണി അങ്ങനെ കുറച്ച് ഐറ്റംസ് പിന്നെ കക്കയുണ്ട് ആ അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലിന്ന് ഇന്ന് സീ ഫുഡാണ് കുറച്ച് ഫോകസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിപ്പം ആ പ്രോൺസും ബിരിയാണിയും ആ ഓക്കെ ഇത് ഇതിന് ടൈമ് ടൈമ് കറക്റ്റ് ഒന്ന് പറയുവോ ഈവനിങ് നാലുമണി ആ ഓക്കെ ഓക്കെ അല്ലാ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഡെലിവറ് ചെയ്യണോ അതോ ഇവിടെ വന്ന് പിക്ക് ചെയ്യോ

ആ കൊണ്ട് വരുന്നതിന് കുഴപ്പമില്ല ആ ഡെലിവെറി ചാർജ് ഉണ്ട് ഡെലിവെറി ചാർജ് നമുക്ക് എട്ട് കിലോമീറ്ററിന് എൺപത് രൂപ വെച്ചിട്ടാണ് ആ ഓക്കെ എന്നാ ലൊക്കേഷൻ ഒന്ന് എനിക്ക് ഓ ഫുഡ് നമുക്ക് നിങ്ങൾക്കറിയാലോ നമ്മൾ അടിപൊളി ഫുഡ് ആയിരിക്കും ആ അതെ ഫുഡിൻ്റെ ഫുഡിൻ്റെ ക്വാളിറ്റിയിലും പിന്നെ ഇതിലും നമ്മൾ അഷുവേർഡ് ആണ് ഒരു പ്രശ്നവുമില്ല കുഴപ്പമില്ല എനിക്ക് ആ ഓക്കെ എനിക്ക് വാട്സപ്പിലൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ ബ്രീഫ് ആയിട്ട് എന്തൊക്കെയാ വേണ്ടെ എന്ന് എത്ര ഐറ്റംസാണ് എന്തൊക്കെ എത്ര വേണം പിന്നെ ലൊക്കേഷൻ ഒന്നയ്ക്കാവോ അതിൽ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ പിന്നെ ആ ഞാൻ മെനു മെനു ഇടാം ആ ഓക്കെ മെനു അങ്ങോട്ടയക്കാം ഓക്കെ എന്നാൽ ശരി